ഒന്നുമില്ലടാ സുഖമായിട്ടിരിക്കുന്നു എന്തുണ്ട് ട്രിപ്പോ ഓക്കെ അതെ അതെ നമ്മുടെ ഈ മൂന്നാറ് തൊട്ടടുത്തോ ആഹാ നീ എന്നാലുമൊന്ന് നേരത്തെ പറയേണ്ടേ ടാ ഓ ആഹ് നിശ്ചയമില്ല ഇരുപത്തിയാറോ നീ കൊള്ളാമല്ലോ നീ എന്നാലും കല്യാണത്തിന് പോലും വിളിച്ചില്ലല്ലോ ഓഹ് ഓക്കെ ഓക്കെ

ഇപ്പോള് വന്നിട്ടുണ്ടോ ഇപ്പോള് വന്നാല് വിടുമോ ഓഹോ നല്ല റൂം മൂന്നാറ് അടുത്തല്ലെ നമുക്ക് എൻ്റെ എൻ്റെ വീട് മൂന്നാറെന്ന് പറയും പക്ഷേ എൻ്റെ കറക്ട് വീട് ആനച്ചാലെന്ന് പറയുന്ന സ്ഥലത്താണ് മൂന്നാറില് നിന്ന് കുറച്ചെയുള്ളൂ ആനച്ചാൽ ആനച്ചാൽ അവിടെ

അ ആ ആ അതെ അതെ അപ്പം പെണ്ണെവിടെയാണ് കൊച്ചെവിടെയാണ് ഛത്തിസ്ഘഡോ

ആഹാ ആഹ് മലയാളിയാണോ മലയാളിയാണോ മലയാളിയാണോ എങ്കില് വിഷയമില്ല അവിടെ താമസിക്കുന്നതല്ലേ ഓക്കെ ഓക്കെ എല്ലാവരുമുണ്ടോ നമ്മുടെ കൂടെ പഠിച്ച എല്ലാവരുമുണ്ടോ ആഹാ എല്ലാവന്മാരും ഉണ്ടല്ലേ ഓഹ് അതു എന്താണ്

ആ ഹാ ഹാ ഹാ അതുണ്ട് ഓ എന്തൊക്കെയായിരുന്നുവല്ലേ എന്തു രസമായിരുന്നുവല്ലേ അതെ അത് നല്ലൊരു ഐഡിയയാണ് പിന്നെ നമ്മളുറപ്പായിട്ടും കാണും

ആ എടാ അവിടെ അടുത്തൊരു സ്ഥലമുണ്ട് എൻ്റെ വീടിന്റെയടുത്ത് ഒരു സ്ഥലമുണ്ട് നമുക്കവിടെ അവിടെയാണെങ്കില് എൻ്റെ എനിക്കറിയാവുന്നൊരു അങ്കിളിൻ്റെ ബന്ധത്തിലുള്ളൊരു ഹോംസ്റ്റെയാണ് നമുക്കവിടെ നില്ക്കുകയാണെങ്കില് വലിയ പൈസയാകില്ല നല്ല സ്ഥലവുമാണ് സ്വിമ്മിംഗ് പൂള് വരെയുണ്ട് എല്ലാമുണ്ട് സെറ്റപ്പാണ് വലിയ പൈസയൊന്നുമാകില്ല അതെ ലൊക്കേഷനൊക്കെ അയച്ചുതരാം ഇപ്പോള് കറക്റ്റ് എവിടെയാണ് നീ ഇപ്പോള് കറക്റ്റെവിടെയാണ് നില്ക്കുന്നത് വട്ടവടയല്ലെ ആ അവിടെനിന്ന് അവിടെനിന്ന് കുറച്ചുണ്ട് ആ കുഴപ്പമില്ല ഞാൻ വിളിക്കാം നിന്നെ ഇന്ന് വിളിക്കാം ഞാന് ഇപ്പം ആ ഹാ ഹാ ഞാൻ കുറച്ചുമുമ്പ് വരെ തിരക്കായിരുന്നു ഇപ്പോള് തിരക്ക്